എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവർ ആണ് അപ്പോൾ ഡ്രൈവർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടിക്കാനും എല്ലാ കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ ബസ് ഓടിക്കാനും അങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബസ് ഓടിക്കാം പിന്നെ ട്രക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓടിക്കാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഡ്രൈവിംഗ് എന്നു പറഞ്ഞുകഴിഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ കൂടെ ഞാൻ പഠനവും കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ പഠിക്കാനും നല്ലൊരു കഴിവുണ്ടെങ്കിൽ നമുക്ക് പഠനവും ജോലിയും ഒരുമിച്ചു കൊണ്ട് നടക്കാൻ പറ്റും പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇടയ്ക്ക് ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകാറുണ്ട് അപ്പോൾ ഒട്ടോറിക്ഷയിൽ നിന്ന് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് ഇവിടെ താഴെയുള്ള ഒരു പുള്ളിൻ്റെ ഓട്ടോറിക്ഷ ആണ് അപ്പോൾ അത് വാടകയ്ക്ക് ഞാൻ ഓടിക്കാറുണ്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഓടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ അവരുടെ വാടകയും പിന്നെ പഠനത്തിലേക്കുള്ള ചിലവും കാര്യങ്ങളൊക്കെ അതിനകത്തു നിന്ന് തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് ബസ്സിൽ പോകാറുണ്ട് അപ്പോൾ ബസ് ഓടിക്കുമ്പം അതിനകത്തുനിന്ന് കിട്ടുന്ന പൈസയും പഠനത്തിലും അങ്ങനെ എടുക്കാറുണ്ട് പിന്നെ എങ്ങനെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ നമ്മുടെ പറമ്പിൽ തന്നെ എന്തെങ്കിലും കാപ്പിയോ കുരുമുളകോ എന്തെങ്കിലുമൊക്കെ പറിക്കാൻ ഉണ്ടെങ്കിൽ അത് പറിക്കും അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വരുമാനമോ അപ്പോൾ അത് വിറ്റിട്ട് കിട്ടുന്ന പൈസയൊക്കെ പഠനത്തിന് വേണ്ടി എടുക്കാറുണ്ട്